എൻ്റെ പ്രദേശത്തിനടുത്ത് ഒരു നേഴ്സിംഗ് കോളേജുണ്ട് ഹോളി ഫാമിലി കോളേജ് ഓഫ് നേഴ്സിംഗ് എൻ്റെ കസിൻ അവിടെയാണ് പഠിക്കുന്നത് അവൾ പഠിക്കുന്നത് ബി എസ് സി നേഴ്സിങ്ങാണ് ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ജോലിക്ക് സാധ്യതകൾ ഏറെയാണ് ഇപ്പോൾ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞൊരു കുട്ടിക്ക് ജോലി സാധ്യത ഇപ്പം പുറത്ത് ഈവൻ പുറത്താണെങ്കിൽ പുറത്താണെങ്കിൽ പോലും ജോലിക്ക് സാധ്യതയുണ്ട് അവർക്ക് പുറത്ത് പോയിക്കഴിഞ്ഞാൽ കൂടുതൽ സാലറി ശമ്പളം കിട്ടും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കുട്ടികളുടെ പഠുന പഠന കാര്യങ്ങളിലായാലും നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റും പിന്നെ നേഴ്സിങ്ങെന്ന് പറയുന്നത് ഒരു ആതുര സേവനം കൂടിയാണ് നമുക്ക് രോഗികളെ നന്നായി പരിചരിക്കുന്നതിനും അവരോടുള്ള സ്നേഹവും കരുണയും എല്ലാം പ്രകടിപ്പിക്കുന്നതിനും നമുക്ക് പറ്റുന്ന ഒരു സമയമാണ് ആരുമില്ലാത്ത രോഗികൾക്കാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്ന സ്നേഹവും കരുണയും അവർക്ക് ഒരു രോഗം എന്നതിലുപരി അവർക്കത് മുമ്പോട്ട് ജീവിതത്തിൽ കുറച്ചുകൂടി അവരുടെ രോഗം കുറയുവാനും എല്ലാത്തിനും അത് സഹായിക്കും ഒരു നേഴ്സിന് എപ്പോഴും വേണ്ടത് പുഞ്ചിരിക്കുന്ന മുഖമാണ് അപ്പം നമ്മുടെ നേഴ്സിംഗ് കോളേജുകളില് കുട്ടികളുടെ പഠനത്തോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് നന്നായി അവർക്ക് നന്നായി പഠിക്കുവാനും ഓരോ മനുഷ്യരോടും എങ്ങനെ പെരുമാറണമെന്നും ഒക്കെ അവിടെ പഠിപ്പിക്കുന്നു ഈ നേഴ്സിങ് നേഴ്സിങ് കോളേജ് സിസ്റ്റർമാരുടെ കീഴിലുള്ള നേഴ്സിംഗ് കോളേജാണ് അവിടെ വളരെ അച്ചടക്കത്തോട് കൂടിയാണ് കുട്ടികൾ ഉള്ളത് അപ്പോൾ അച്ചടക്കത്തോടെയാണ് അവിടെ കുട്ടികൾ പെരുമാറുന്നത് എല്ലാവരും ദിവസവും രാവിലെ അവർ പള്ളിയിൽ പോകുന്നു അവർ ശരിക്കും ദൈവീക അരൂപിയിലാണ് അവരുടെ പഠനം നടത്തുന്നത് ആതുര സേവനത്തിൽ ഇടുക്കി ജില്ലയിൽ ആതുര സേവനത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാശുപത്രിയാണ് ഈ ഈ നേഴ്സിംഗ് കോളേജിൻ്റെ ഈ ആശുപത്രിയുടെ കീഴിലാണ് ഈ നേഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത് കൂടാതെ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെല്ലാം വളരെ ഉന്നത നിലവാരത്തിലുള്ള നിലവാരത്തിലുൾ ഉന്നത നിലവാരത്തിലുള്ള ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനെൻ്റെ കസിനെ അങ്ങോട് നേഴ്സിങ്ങിന് വേണ്ടി പറഞ്ഞുവിട്ടത് ഇടുക്കി ജില്ലയിലെ തന്നെ മികച്ച ഒരു ആതുരാലയമാണ് മുതലകൊടത്തുള്ളത് അവിടെ നിന്നും ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ആ കുട്ടി ഒരു എല്ലാ പ്രൊസീജറുകളും പഠിച്ച് ആണ് ഇറങ്ങുന്നത് അതിനുശേഷം ഏത് ഒരു ഹോസ്പിറ്റലിൽ പോയാലും അവർക്ക് ജോലിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എല്ലാ പ്രൊസീജറ്കളും കറക്റ്റായി ചെയ്ത് അത് ആ കറക്ടായി ചെയ്ത് അതുകൊണ്ട് അവർ അവരുടെ തിയറിയും പ്രാക്ടിക്കലിലും നന്നായി ആണ് പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഏതൊരു ആശുപത്രിയിൽ ചെന്നാലും ജോലിയുടെ ഭാഗത്ത് അവർക്കൊരു വീഴ്ചയുണ്ടാവാറില്ല

കേരളത്തിലായാൽ കേരളത്തിലായാലും കേരളത്തിന് വെളിയിലാണേലും ഇന്ത്യയ്ക്ക് പുറത്താണെങ്കിൽ പോലും അവർക്ക് ജോലിയിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല അവർ നന്നായി ചെയ്യുന്നതിനും നന്നായി തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോകുന്നതിനും സാമ്പത്തികമായും സാമൂഹ്യമായും കുട്ടികൾടെ പഠനത്തിലാണെങ്കിൽ പോലും അവർക്ക് ഒരു ജോലി കിട്ടി ഇന്ത്യയ്ക്ക് വെളിയിൽ പോയാൽ അവരുടെ കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്താനും എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ലതാണ്